കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ പശ്ചാത്തലത്തില് നിലവില് കേരളത്തില് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന നില നിലവിലെ വെല്ലുവിളികളും അവസ അവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഈ ഓൺലൈൻ പഠനം സ്കൂൾ അടച്ച് പൂട്ടൽ വാക്സിൻ വിതരണം നിലനിൽക്കുന്ന സാമ്പത്തിക ആഘാതം സിസ്റ്റം ആക്സിസ് പ്രശ്നങ്ങള് അറിവില്ലായ്മ അങ്ങനെ ഉള്ളതൊക്കെ ണ്ടായിട്ടുണ്ട് കൂടുതലായിട്ട്ന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് നയന്റീൻ വന്നതോട് കൂടെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്കൂളിലേക്ക് പോവാൻ പറ്റുന്നില്ല ആ പിന്നെ അവരുടെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എക്സാമൊക്കെ നടക്കുമ്പോൾ അതിന് അതിൻ്റെ രീതി തന്നെ എക്സാമ്കളൊക്കെ നടക്കും എന്നാൽ പഠിക്കാനൊന്നും പറ്റ് പറ്റുന്നില്ല അങ്ങനെ ഉള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പകരം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടൊക്കെ അങ്ങനെ കോവിഡ് വന്നതിന് ശേഷമാണ് ഈ ഓൺലൈൻ പഠനം ഒക്കെ തുടങ്ങിയത് പിന്നെ സ്കൂളുകളൊക്കെ പൂട്ടുകയക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ സ്കൂളുകളിലക്കേന്ന് പറഞ്ഞാല് ഇങ്ങനെ കോവിഡായിട്ടുള്ള ആളുകളക്കെ സംരക്ഷിക്കുവൊക്കെ ചെയ്യുന്നവർക്ക് മരുന്നുകളൊക്കെ കൊടുക്കുന്ന വാക്സിനക്കെ കൊടുക്കുന്ന ഇതൊക്കെയുണ്ടായിരുന്നു ഇപ്പോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാക്സിനൊക്കെ കൊടുത്തിപ്പോൾ ആ ഒരു കോവിഡിനെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ പുറം തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നക്കെയാണ് പറയുന്നത്